കൂട്ടുകുടുംബം ആയിട്ട് ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പക്ഷെ എന്നാലും എല്ലാ ആൾക്കാരും അതില് ഇൻവോൾവാവുന്നില്ലെങ്കിൽ അതില് ഉൾപ്പെടുന്നില്ലാന്ന് പറയാം കാരണം കൃഷി ചെയ്തിട്ട് കൃഷിയുടെ എന്താ പറയുക ആൾക്കാരുടെ മനോഭാവം മറ്റുകാര്യങ്ങളൊക്കെ മാറി വരികയാണ് ഒരുപാട് അധ്വാനിക്കേണ്ട രീതി വരുന്നു അ അ അധ്വാനിക്കേണ്ടതായി വരുന്നു അതുപോലെതന്നെ സമയമില്ലായ്മ ഇതൊക്കെ തന്നെയാണ് ആൾക്കാര് അതില് വ്യാപൃതനാകാതിരിക്കാനുള്ള മെയ് പ്രധാന കരണങ്ങളെന്ന് പറയണത് കൃഷിയുടെ പ്രാധാന്യമെന്ന് പറയുമ്പോൾ അത് കുറഞ്ഞ് കുറഞ്ഞു തന്നെ വരുവാണ് അപ്പോൾ ഓരോ വ്യക്തിക്കും അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഓരോ രീതിയിലായിരിക്കാം അപ്പോൾ ആ അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരും അതില് താല്പര്യപ്പെടുന്നില്ല ചെയ്യാനൊന്നും അങ്ങനെ മാറിവന്ന കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നത്